ഹലോ ആ ന്യൂ ഫോം റെസ്റ്റോറൻ്റല്ലേ ഞാന് അവിടുന്ന് കുറച്ച് അതായത് സാധനങ്ങളൊക്കെ ഓർഡറെയ്തിട്ടുണ്ടായിരുന്നു ആ അതെ അതെ അതെ അപ്പോൾ ഇപ്പോൾ ഞാന് ടൗണിലുണ്ടായിരുന്നു അപ്പോൾ ഞാന് വീട്ടിലേക്ക് പോയികൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങള് എത്താറായൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ പായ്ക്കെയ്തൊണ്ടികുന്നേ ഉള്ളൂ അല്ലെ ഓക്കെ ഓക്കെ അങ്ങനാണെങ്കില് അതിൻ്റെ കൂടെ എനിക്ക് കുറച്ച് ഡിസ്പോസിബിൾ പ്ലേറ്റും കാര്യങ്ങളൊന്ന് വെക്കുമോ ആ അതെ അതെ ഞാന് പുതുതായിട്ട് താമസത്തിന് വന്നതാണ് അപ്പം അവിടെ ഞാൻ ഒര് കാര്യങ്ങളും മേടിച്ച് വെച്ചിട്ടില്ല അപ്പം ഞാൻ ഇപ്പോൾ വന്ന് കയറിയതേ ഉള്ളു അതാ ഞാൻ ഓർഡറെയ്തത് ആ ഓക്കെ ആ ഡിസ്പോസിബിൾ പ്ലേറ്റൊരു ഒരു പത്തെണ്ണം വെച്ചോ കുഴപ്പമില്ല

ഓക്കെ ഓക്കെ പിന്നേ നമുക്കിപ്പോൾ ഫോർക്ക് ഇതിലുണ്ടാകില്ലെ സ്പോ ഫോർക്ക് സ്പൂണ് ആ അതെ അതെ നമുക്ക് ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ കുത്തികഴിക്കാൻ പറ്റിയ സാധനമാണ് ആ ഓക്കെ ഓക്കെ അത് തന്നെ അത് തന്നെ അതൊര് ആ അഞ്ചെണ്ണം വെച്ചാൽ മതി ഓക്കെ ആ ഓക്കെ ഓക്കെ ആ ആ അത് മതി അത് മതി ആ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഒന്ന് അത് കൂടെ പാക്കെയ്തിട്ട് ഒന്നയച്ചേക്കൂ കേട്ടോ ഓക്കെ എന്നാല്